ഇന്ത്യയിലെ ഗതാഗത സംവിധാനം ഒരു ചില ഇടങ്ങളിലൊക്കെ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പക്ഷേ കുറച്ച് കൂടെ അതായത് മധ്യപ്രദേശ് മധ്യപ്രദേശ് അവിടെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ റോഡുകളെല്ലാം ഹൈവേ ആയതുകൊണ്ട് തന്നെ വീതിയേറിയ റോഡുകൾ അതുപോലെ തന്നെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള റോഡുകൾ ആയത് കൊണ്ട് തന്നെ വാഹനം ഓടിക്കാൻ വളരെ സുഖകരമാണ് പക്ഷെ കേരളത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ ഊടു വഴികളും ഉള്ള വഴികളൊക്കെ തന്നെ കുണ്ടും കുഴിയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഗതാഗത സംവിധാനം എന്ന് പറയുന്നത് ആളുകൾ കെയർലെസ് ആയിട്ടാണ് പലപ്പോഴും വാഹനം ഓടിക്കുന്നത് ഇടത് വശത്തു കൂടെയും വലത് വശത്തു കൂടെയും കയറി ആളുകളെ നോക്കാതെ വാഹനം ഓടിക്കുന്നത് കൊണ്ട് പലപ്പോഴും അപകട സാധ്യത വളരെ ഏറെയാണ് ഇന്ത്യയിലെ ഗതാഗത സംവിധാനം ഈ ഗതാഗത സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള ഗതാഗത സംവിധാനത്തെ അട്ടിമറിക്കുന്നവർക്ക് അതായത് തെറ്റ് തെറ്റായ രീതിയിൽ അപ്രകാരം ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ ഒരു പരിധി വരെ ആളുകൾക്ക് കെയറോടുകൂടി വാഹനം ഓടിക്കുവാനും ആളുകളെ സുരക്ഷിതമായിട്ട് തങ്ങളുടെ വീടുകളിൽ എത്തിക്കുവാനും ഒക്കെ സാധിക്കും പക്ഷേ ഇന്ത്യയിൽ ഒരു നോട്ടവും ഇല്ലാതെയാണ് പല വാഹനങ്ങളും പ്രത്യേകിച്ച് ഓട്ടോ ടു വീലേഴ്സ് ഒക്കെ വാഹനം ഓടിക്കുന്നത് വളരെ കെയർലെസ്സ് ആയിട്ടാണ്